പലതരത്തിലുള്ള പാച പാചകരീതികൾ പലതരത്തിലാണ് എങ്കിലും നമ്മുടെ നാട്ടിന് അനുയോജ്യമായ രീതിയിലുള്ളപാചകം ചെയ്യുന്നതാണ് എനിക്ക് കൂടുതൽ ഇഷ്ടം രണ്ടാമത് നോർത്ത് ഇന്ത്യനോ ചൈനീസോ അതുപോലുള്ള അല്ലെൽ ഗ്രിൽഡ് അങ്ങനെയുള്ള പാചകങ്ങൾ ചെയ്യാൻ

അതിനോട് കൂടുതലും ഇഷ്ടാവുമാണത് അത് കഴിക്കുന്നതുവാണ് കൂടുതൽ താല്പര്യം അതുകൊണ്ട് അത് വെൽക വെക്കുവാനുമാണ് താല്പര്യം കൂടുതല് വീട്ടിൽ സാധാരണ ഉണ്ടാക്കുന്ന അച്ചറുകളാണെങ്കിലും തോരൻ സാധാ ചോറ് അതിന് അനുയോജ്യമായ കാളൻ മോര് അവിയല് അങ്ങനെയുള്ള നാടൻ വിഭവങ്ങളാണ് കൂടുതൽ ഉണ്ടാക്കാൻ ഏറ്റവും ഇഷ്ടപ്പെടുന്നതും അത് ചെയ്യാനും വളരെ എളുപ്പത്തിൽ സാധിക്കുന്നുണ്ട് മറ്റ് ഫുഡുകൾ എന്നൊക്കെ പറയുമ്പോൾ അത് വളരെയേറെ ബുദ്ധിമുട്ട് എനിക്ക് തോന്നുന്നുണ്ട് അതിനോട് വലിയ ഇൻ്ററസ്റ്റുമില്ല അപ്പോൾ അത് ചെയ്യാനാണ് ഏറ്റവും പാട് എന്നുള്ളയൊരു അനുഭവമാണ് എനിക്കുള്ളത് ഇതാകുമ്പോൾ നമുക്കറിയാവുന്ന രുചി കൂട്ടുകൾ ചേർക്കാനും അതിൻ്റെ പാചകങ്ങൾ ചെയ്യാനും വളരെ ഈസിയായിട്ട് സ്വന്തമായിട്ട് തന്നെ ചെയ്യാനും സാധിക്കും മറ്റുതരം ഭക്ഷങ്ങളെന്ന് പറയുമ്പോൾ ഒരാളുടെ ഹെൽപ്പ് കൂടി വേണ്ടി വരികയും രണ്ടാമത് അതിനുള്ള സാധന സാമഗ്രികൾ ഒപ്പിച്ച് അടിപ്പിച്ച് അത് ചെയ്ത് വരുമ്പോൾ കൂടുതൽ സമയം അതിന് ചിലവഴിക്കയും ചെയ്യേണ്ടി വരുന്നു അത് കഴിക്കാനും അധികമായിട്ട് താൽപര്യം കുറവാണ് ഇതൊക്കെ കൊണ്ട് നാടൻ ഭക്ഷണ രീതികളോടാണ് എപ്പോഴും എളുപ്പം മീനും മീൻ വറുത്തതും അങ്ങനെയുള്ള നാടൻ തോരൻ ഐറ്റംസും അത്പോലുള്ള സാധനങ്ങള് പായസം കൂട്ടി ഉൾ ഉൾപ്പെടെ വിഭവങ്ങൾ ഉണ്ടാക്കുകയാണ് കൂടുതൽ താൽപര്യം